നോബൽ പ്രൈസ് എന്നു പറയുന്നത് ഒരു അംഗീകാരമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നെയൊരു കാര്യമാണ് രവീന്ദ്രനാഥ ടാഗോറിന് സാഹിത്യത്തിനും മലാല യൂസഫ് സായിക്ക് സമാധാനത്തിനും നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് യൂസഫ് സായ് സായ്ക്ക് പതിനെട്ടാമത്തെ വയസ്സിൽ നോബൽ പ്രൈസ് ലഭിച്ച ഒരു വ്യക്തിയാണ് ഇവരുടെ പുസ്തകങ്ങൾ ഇവർ ധാരാളം മായി നമ്മുടെ ലൈബ്രറികളിലും പുസ്തക ശാലകളിലും ലഭ്യമാണ് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിച്ച് അറിവുകൾ നേടുന്നതും വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് ധാരാളം പുസ്തകങ്ങൾ നമ്മുടെ ബുക്ക് ശാലകളിൽ ലഭിക്കുന്നതു കൊണ്ടു നമ്മുടെ ആൾക്കാർ ഇഷ്ടം പോലെ സാധാരണയായി വാങ്ങി അതു വായിക്കാറുണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാറുണ്ട്